സംസ്കൃതം ആയാലും ഇംഗ്ലീഷായാലും അതുപോലുള്ള ഏത് ലാംഗ്വേജ് കുറച്ചു ലാംഗ്വേജിനായി ഇപ്പോൾ തമിഴ് ആണെങ്കിലും നമ്മുടെ മലയാള ഭാഷേനെ ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ആണ് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല മലയാളത്തിൻ്റെ ഒരു ഉറവിടം അതായത് അതിൻ്റെ ഒർ ഒർജിൻ എന്ന് പറയുന്നത് സംസ്കൃതവാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് മലയാളം ഉരുത്തിരിഞ്ഞതില് ഒരു വലിയ പങ്ക് സംസ്കൃതത്തിനുണ്ട് സംസ്കൃതത്തിലെ പല വേഡും നമ്മൾ ഇപ്പോൾ മലയാള ഭാഷയുടെ ഒരു സാധാരണ വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് എക്സാംപ്ള് ഉണ്ട് പിന്നെ ഇംഗ്ലീഷാണെങ്കിലും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം എന്താണ് ബ്രിട്ടീഷ്കാര് ഈ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വ്ദ്യാഭ്യാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എന്താണ് പല വേഡ്സ് ഏ നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേർഡ് അതിൻ്റെ അറിയത്തുള്ളായിരിക്കും മലയാളം അറിയത്തില്ല അപ്പോൾ നമുക്ക് എന്താണ് കുറെ ഇപ്പം എന്താണ് ഫാൻ എന്നുള്ളതിൻ്റെ അപ്പം എന്താണ് പങ്ക എന്നാണ് പക്ഷെ നമ്മളാരും പങ്ക എന്ന് പറയാറില്ല എന്താണ് ഫാൻ എന്ന് തന്നെയാണ് കൂടുതല് പറയാറുള്ളത് അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരൂ മിക്ക വേഡ്സും എടുത്ത് നോക്കിയാല് അല്ലാതെ കുറച്ചിങ്ങനെ ഇംഗ്ലീഷ് വേഡ്സ് നമ്മള് സ്ഥിരം പറഞ്ഞ ഇംഗ്ലീഷ് വേഡ്സ് എടുത്ത് നോക്കിയാൽ അതിൻറ്റൊയൊന്നും മലയാളം നമുക്ക് അറിയണം എന്നില്ല അപ്പോൾ മലയാളം മറ്റു ഭാഷകള് അത് ഈ പറയുന്ന ഇംഗ്ലീഷാണെങ്കിലും സംസ്കൃതവാണെങ്കിലും അല്ല ഇപ്പോൾ തമിഴ് പറഞ്ഞാലും അതൊക്കെ നമ്മുടെ മലയാള ഭാഷേനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്